മലയാളികളുടെ ഒരുതരം വികാരമാണ് മലയാളം മലയാളികൾ ഇപ്പം നമ്മുടെ ഈ ലോകത്തുതന്നെ ഉള്ള എല്ലാ രാജ്യങ്ങളും മിക്ക രാജ്യങ്ങളിലും മലയാളികളുണ്ട് എവിടെപ്പോയാലും നമുക്ക് മലയാളികളെ കാണാൻ പറ്റും പക്ഷെ എവിടെ ചെന്നാലും മലയാളികൾ അവരുടേതായ ഒരു ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യുന്നുണ്ട് കീപ്പ് ചെയ്യാനവർ ശ്രമിക്കാറുണ്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ തൃശ്ശൂർ പൂരം അല്ലെങ്കിൽ ഇപ്പം ഒരു പള്ളി പെരുന്നാൾ എന്നൊക്കെ പറയുന്നത് എപ്പോഴും വിദേശത്തുള്ളവർക്കൊരു ഭയങ്കര എന്തോ ഒരു വലിയ കാര്യമാണ് ഒരു വലിയ അദ്ഭുതം തന്നെയാണ് അതായത് നമ്മൾ മറ്റുള്ള ഇന്ത്യയിലെ ഇന്ത്യയിലെ ആണെങ്കിലും മറ്റുള്ള സ്ഥലത്തെ വെച്ച് നോക്കിയാൽ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളെ വെച്ച് നോക്കിയാൽ വളരെ വളരെ എന്തോ ഡിഫറൻ്റായിട്ടുള്ള ഒരു സംസ്കാരമാണ് നമ്മൾ മലയാളികൾക്കുള്ളത് നമുക്ക് ഇപ്പം ഓണം ഓണമെന്ന് പറയുന്നത് മലയാളിക്ക് ഒരു വലിയ ആഘോഷം തന്നെയാണ് ഈ ഓണം ഒരു മതം ജാതി മതഭേദമന്യെയാണ് എല്ലാവരും ആഘോഷിക്കുന്ന അത് തന്നെ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ മലയാളികളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഓണമെന്ന് പറയുന്നത് അതുപോലെത്തന്നെ ഈ ഓണത്തിന് ഒത്തിരി പരിപാടികൾ പിന്നെ എവിടെ ചെന്നാലും മലയാളിയെ കാണുമ്പം എല്ലാവർക്കും ഒരു പ്രത്യേക തരം ഇഷ്ടമാണ് പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ പുതിയ പുതിയ കാര്യങ്ങളുടെ പുറകെ ഓടുന്നുണ്ട് എന്നിരുന്നാലും നമുക്ക് നമ്മുടെ ഭാഷ അല്ലെങ്കിൽ നമ്മുടെ ഐഡന്റിറ്റി നമ്മുടെ മലയാളികളുടെ സ്വന്തമായിട്ടുള്ള കുറേ കാര്യങ്ങളൊന്നും അവർ ഉപേക്ഷിക്കാൻ ഒരിക്കലും റെഡിയാവത്തില്ല കാരണം നമുക്ക് പെട്ടെന്ന് പുതിയ പുതിയ കൾച്ചറിനെക്കുറിച്ചൊക്കെ പഠിക്കുമ്പം അത് ഭയങ്കര ഇൻട്രെസ്റ്റിംഗായിട്ട് തോന്നുന്നുവെന്ന് പറഞ്ഞാലും നമ്മളെല്ലാവരും മലയാളികൾ നമ്മുടെ തന്നെ നമ്മുടെ ഐഡൻറ്റിറ്റീനേയും നമ്മുടെ തന്നെ ആ ഒരു നാടിനേയും മലയാളത്തേയും നമ്മുടെ ഒരു സംസ്കാരത്തേയും ഭക്ഷണത്തേയും എല്ലാം കൂടുതലും സ്നേഹിക്കാൻ മലയാളികൾ അത് മറ്റുള്ളവരെ കാണിക്കാനും അറിയിക്കാനും ഭയങ്കര ഇൻട്രസ്റ്റ് കാണിക്കാറുണ്ട് അത് വല്യ ഒരു കാര്യമാണ് നമ്മുടെ ആ ഐഡൻറ്റിറ്റി നമ്മുടെ സ്വത്വവും സ്വത്വബോധമെന്ന് പറയുന്നത് മലയാളികൾക്ക് എപ്പോഴും നല്ലൊരു കാര്യമാണ് അതുപോലെത്തന്നെ നമ്മുടെ ഭാഷ ഭയങ്കര ഡിഫറൻ്റാണ് മലയാളം അമ്പത്താറ് അക്ഷരങ്ങളുണ്ട് ഇംഗ്ലീഷിനെ വെച്ച് നോക്കിയാലും മറ്റേത് ഭാഷയെ വെച്ച് നോക്കിയാലും കുറച്ചുകൂടെ ടഫാണ് മലയാളം പക്ഷെ പഠിച്ചെടുക്കാനെളുപ്പമാണ് അതിൽ നമ്മൾ സംസാരിക്കുമ്പോൾത്തന്നെ നമ്മളത് പഠിച്ചെടുക്കും പക്ഷെ മറ്റുള്ള ഭാഷകളും നമ്മൾ ഒത്തിരി പാടുപെട്ടാണ് പഠിക്കേണ്ടി വരുന്നത് പക്ഷെ മലയാളം അത്രയും കഷ്ടപ്പെട്ട് പഠിക്കേണ്ടി വരുന്നില്ല നമ്മളിപ്പം ഏത് വിദേശിയാണെങ്കിലും ആർക്ക് വേണേലും പെട്ടെന്ന് പടിച്ചെടുക്കാവുന്ന ഒരു ഭാഷയാണ് മലയാളം